ഗുഡ് മോർണിംഗ് മേഡം അതെ മേഡം ഓക്കെ മേഡം നിങ്ങൾ എത്ര പേരാണ് പോകുന്നത് ഓക്കെ നമുക്ക് മേഡം പ്ലേസും സീസൺ നമുക്ക് അങ്ങനെ ആണെങ്കിൽ മൂന്നാറിലേക്ക് നോക്കിയാലോ ഇപ്പം നമുക്ക് കാലാവസ്ഥ കുറച്ച് സ്യൂട്ടബിൾ ആണ് അപ്പം മക്കൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം നമുക്ക് ആ നമ്മുടെ ഓഫറിലാകുമ്പോൾ സ്പെഷ്യൽ റൈഡും കാര്യങ്ങളുമൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാർ നോക്കാം

ഓക്കെ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ സ്പെഷ്യൽ നമുക്കൊരു ഓഫർ ഉണ്ട് അപ്പം നമ്മുടെ ഓഫറിൽ വരുന്നത് ട്രാവൽ എക്സ്പൻസും നമ്മൾ ഇപ്പോൾ മൂന്ന് ദിവസം മൂന്ന് ദിവസമാണ് നമുക്ക് ഇപ്പോൾ ഓഫറ് വരുന്നു മൂന്ന് അഞ്ച് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞത് മൂന്നാണ് അപ്പോൾ മൂന്ന് വരുമ്പോൾ മൂന്ന് ദിവസത്തെ ഫുൾ അക്കോമഡേഷനും ഫുഡും പിന്നെ ട്രാവൽ എക്സ്പെൻസും എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് തൗസൻഡ് റേറ്റ് വരും അപ്പോൾ ആ പറഞ്ഞോളൂ മേഡം ആ റൈഡും കാര്യങ്ങളും ആ റൈഡും നമ്മൾ നമ്മൾ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ഗെയ്മും റൈഡും കാര്യങ്ങളൊക്കെ ഇതിന് അകത്ത് ഉൾപ്പെടും ഈ ഓഫറിൽ ഉൾപ്പെടും നമ്മൾ അഡീഷണലായിട്ട് ഒരു റൂം ഒരു റൂം നമുക്ക് എ സി ആയിരിക്കും നമുക്ക് വലിയ ഡബിൾ കോട്ട് ഒരു ഫാമിലി കോട്ട് റൂമ് മതിയല്ലോ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികളല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഓക്കെ ആക്കാം അപ്പം അങ്ങനെ വരുമ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് വരുമ്പോൾ ട്വൻ്റി ട്വൻ്റി ഫൈവ് തൗസൻ്റ് ആ റേഞ്ചിൽ വരും അതെ അതെ മൂന്ന് മൂന്ന് ദിവസത്തെ പാക്കേജ് വരുന്നത് ഓക്കെ ഓക്കെ ഓക്കെ മേഡം താങ്ക് യു ഒക്കെ